കാലാവസ്ഥ വ്യതിയാനങ്ങളെപ്പോഴും നമ്മളെ കൃഷികളെ ശരിക്കും ബാധിക്കാറുണ്ട് അതായത് ഈ പ്രാവശ്യം നമുക്ക് കടുത്ത വരൾച്ചയാണ് നമുക്ക് അനുഭവപ്പെട്ടോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഭാഗങ്ങളിൽ നമ്മുടെ ഇ ഏലം ഏലമാണ് നമുക്ക് മെയിനായിട്ടുള്ള കൃഷി ഏലം തന്നകൾനം തണ്ടകൾ നമുക്ക് ശരിക്കും ആ വരൾച്ചയെ ബാധിച്ചിട്ടുണ്ട് നമുക്കെന്നാലും ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ജലം ജലത്തിൻ്റെ ലഭ്യത കുറവായത് കൊണ്ട് അതും അതും കാലാവസ്ഥ വ വരൾച്ച കൂടുതലും സൂര്യൻ്റെ ചൂട് കൊണ്ടുള്ള വര വരൾച്ച കൂടിയതും നമുക്ക് നനയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നോണ്ടും നമ്മുടെ ഏലം നല്ല രീതിയിൽ നമുക്ക് നഷ്ടം വിതച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നഷ്ടങ്ങൾ പിന്നെ നികത്താനായിട്ട് നമ്മൾ ഞാൻ എൻ്റെ തോട്ടം ഇൻഷൂറ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിൽ നമുക്ക് ചെറിയൊരു സഹായം നമ്മുടെ ഇൻഷുറൻസ് തുകയായിട്ടും അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് ചെറിയൊരു ധന സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ആ ഒരു ചെറിയ സഹായം കൊണ്ട് നമുക്ക് വലിയ ദുരിതത്തിലേക്ക് പോകാതെ തന്നെ നമ്മുടെ കൃഷിയിടത്തെ നമുക്ക് തിരിച്ച് പഴയ പോലെ പഴയൊരു പൂർവ്വ സ്ഥിതിയിലേക്ക് കൊണ്ട് വരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മഴ തുടങ്ങിയത് കൊണ്ട് നമുക്ക് മെയ് ആദ്യം തന്നെ മഴ തുടങ്ങിയത് കൊണ്ട് കടുത്ത കടുത്ത വെള്ളപ്പൊക്കത്തിലേക്കുള്ള സാധ്യത കാണുന്നുണ്ട് നമ്മൾ മെയ്യിൽ പകുതി കഴിഞ്ഞ് പെയ്യേണ്ട മഴയാണ് നമുക്ക് മെയ് ആദ്യം പെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ജൂൺ ജൂലൈ വരുന്ന മാസങ്ങളിൽ നല്ല ത് മഴ പെയ്യുന്നോണ്ട് തന്നെ വെള്ളപ്പൊക്കത്തിനൊരു സാധ്യതയും കാണുന്നുണ്ട് അതും നമുക്ക് കൃഷിയിടങ്ങൾ ഇൻഷൂർ ചെയ്ത് ചെയ്തിട്ടുള്ളത് കൊണ്ട് സർക്കാരിൽ നിന്ന് എന്തേലും സഹായങ്ങളും അത് തന്നെ എന്തേലും കൃഷി ഭവൻ അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്കെന്തേലും സഹായം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു